കല്യാണം പോലെയുള്ള ഫങ്ഷണുകളിൽ നമ്മൾ വലിയ വലിയ ടാങ്കുകളിൽ തന്നെയാണ് ഡ്രമ്മുകൾ അങ്ങനെയുള്ളതിൽ തന്നെയാണ് വെള്ളം പിടിച്ച് വെക്കാറ് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നേ സ്വന്തമായി കിണറുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചാണ് നടത്തുന്നതെങ്കിൽ സ്വന്തമായി കിണറുള്ളവരാണെങ്കിൽ എന്തായാലും മോട്ടറുണ്ടാകും അപ്പോൾ മൊട്ടർ അടിച്ച് നമ്മൾ ടാങ്കുകളിൽ തന്നെ കയറ്റും ഇപ്പോൾ നമ്മൾ മണ്ഡപങ്ങൾ അങ്ങനെയുള്ളവിടെയാണെങ്കിൽ അവിടതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും അവർ അവിടെ മോട്ടറുണ്ടാകും കുഴൽ കിണറുണ്ടാകും അപ്പം അതടിച്ച് അവർ ടാങ്കുകൾ ഉണ്ടാകും ഇപ്പം അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ടാങ്ക് ടാങ്കിൽ വെള്ളം പിടിച്ച് നമ്മൾ വണ്ടികളിൽ കൊണ്ട് പോകേണ്ടി തന്നെയാണ് വരിക അല്ലെങ്കിൽ വലിയ വലിയ പൈസ കൊടുക്കുന്ന മണ്ഡപങ്ങളാണെങ്കിൽ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളനുസരിച്ച് വെള്ളം വെള്ളം സംരെ സംരഭിക്കുന്ന എല്ലാം തന്നെയുണ്ടാകും സംരക്ഷിക്കേണ്ടത് എല്ലാം തന്നേ ഇപ്പം വെച്ചിട്ടുണ്ടാകും പൈപ്പാണെങ്കിൽ പൈപ്പ് കണക്ഷൻ ഉണ്ടാകും കെ ചില മണ്ഡപങ്ങളിൽ കിണറാണെങ്കിൽ കിണർ മോട്ടറടിക്കേണ്ട എല്ലാം വെച്ചിട്ടുണ്ടാകും വേറെ വെള്ളമില്ലയെന്ന് ചെറിയ ചെറിയ മണ്ഡപമാണ് വെള്ളമില്ലയെന്ന് വരികയാണെങ്കിൽ നമ്മളിങ്ങനേ വീട്ടിൽ നിന്ന് തന്നേ ഡ്രമ്മിലാക്കി വണ്ടികളിലാക്കി കൊണ്ട് വരേണ്ടത് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരില്ലയെന്ന് വിചാരിക്കുന്നു